എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കൂടുതൽ ആൾക്കാർക്കായിട്ട് ഭക്ഷണം പാചകം ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ കുറച്ചു പേരായിക്കോട്ടെ കൂടുതൽ പേരായിക്കോട്ടെ ഭക്ഷണം പാചകം ചെയ്യുമ്പോളുള്ള കൂട്ടുകളെല്ലാം ശരിയായില്ലാന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്നവരെയും അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം ആസ്വദിച്ചു കഴിക്കാനും സാധിക്കില്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്കൊക്കെ ആയിട്ട് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ കൂടുതലും കട്ടിയുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഒരുപാട് ഫുഡ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് അടിയിൽ പിടിക്കാൻ പാത്രത്തിന് അടിയിൽ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസുണ്ട് അപ്പോൾ കുറച്ച് അടിയിൽ കട്ടിയുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും പിന്നെ നേരത്തെ തന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു വയ്ക്കാൻ സാധിക്കുവാന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടൈം മാനേജ് ചെയ്യാനുള്ള ആ ഒരു പ്രശ്നം നമുക്ക് അതുപോലെ

അല്ലേൽ കുറച്ച് കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ആൾക്കാർക്കായിട്ട് കുക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റുന്ന മാർഗങ്ങൾ പൊതുവേ ഞാൻ അങ്ങനെ ഒരുപാട് കുക്ക് ചെയ്യുന്ന ഒരു ആളല്ല എന്നിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ പുറത്തിട്ടൊക്കെ അടപ്പുകൂട്ടി കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്